എൻ്റെ കൈവശം അനേകം പുസ്തകങ്ങളുണ്ട് അതിൽ അവസാനമായിട്ട് വാങ്ങിയത് ബെന്ന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന പുസ്തകമാണ് അതിന് മുമ്പെ തകഴിയുടെ കയർ ചെമ്മീൻ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം എൻ്റെ കൈയ്യിലുണ്ട് ഇത്രം പുസ്തകങ്ങൾ പറ്റി കേട്ടറിഞ്ഞാൽ ഞാൻ ഇത് പുസ്തകം വാങ്ങുക പതിവാണ് സാധാരണമായി ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങാറുള്ളത് നേരത്തെ ലൈബ്രറികളിൽ നിന്നൊക്കെ എടുത്ത് വായിച്ചിരുന്നെങ്കിലും

നേരിട്ട് പണം കൊടുത്ത് വാങ്ങി വായിക്കുകയാണ് ചെയ്യുന്നത്